നമ്മളെ മറ്റ് കലകളില് ഉറപ്പായിട്ടും നമ്മള് എന്തായാലും കഥകളി മോഹിനിയാട്ടം ഇതൊക്കെ മറ്റു രാജ്യങ്ങളില് അവര് കാണുന്നില്ല മറ്റു രാജ്യങ്ങള് കാണുമ്പോഴത്തേന് എന്തുവാണ് നല്ലൊരു സംഭവമായിട്ട് നമ്മള് അത് അവര് കാണുകയും മറ്റു രാജ്യങ്ങള് കണ്ട് രസിക്കുകയും അതുപോലെ നമ്മളെ കലകളെ അവര് അംഗീകരിക്കുകയും അവര് കാണു ക്യൂരിയോസിറ്റി വരികയും മറ്റ് രാജ്യങ്ങളില് അംഗീകരിക്കുകയും ചെയ്യും അതായത് അവര് കാണാത്തതുകൊണ്ടും അവര് കേള്ക്കാത്തതുകൊണ്ടും എന്ത് കാര്യമായാലും പിന്നെ നല്ല വൃത്തിക്ക് മെയിനായിട്ടു നമ്മള് കഥകളിയിലേക്കാണ് ഒരു നൃത്തച്ചുവടും ആ കലാരൂപവും ഉണ്ടല്ലോ മോഹിനിയാട്ടം നാടോടി നമ്മള് അത് കാണുകയും അത് ഇതാവുകയോ നമ്മള് സന്തോഷിക്കുകയോ ആ ഒരു മറ്റു രാജ്യങ്ങള് എന്തായാലും കാണുകയോ നമ്മള് എന്തായാലും ആഗ്രഹിക്കും മറ്റു രാജ്യക്കാര് ഇത് കണ്ട് അവര് കാണാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് അവര് അംഗീകരിക്കും കാര്യങ്ങളെല്ലാം അത് നമ്മള് ചെയ്യേണ്ടതാണ് അവര് അതുപോലെ നമ്മളെ അംഗീകരിക്കും എന്നിരിക്കും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കാണിക്കാന് എന്തായാലും അവരെ കേരളീയൻ എന്ന നിലയിലും ആഗ്രഹമുണ്ട് ഇന്ത്യയില് കലാരൂപങ്ങളെന്ന് പറഞ്ഞാല് ഇത്രയും നല്ല കലാ രൂപങ്ങളാണ്